മേയ് ഐ കം ഇൻ മാം താങ്ക് യു മാം ഗുഡ് മോർണിംഗ് മാം ഞാനിപ്പോൾ പത്തു കഴിഞ്ഞ് ഇരിക്കുകയാണ് എൻ്റെ പേര് ആര്യ ഞാൻ മണ്ണാർക്കാട് ആണെൻ്റെ വീട് മണ്ണാർക്കാടാണ് താമസിക്കണത് എനിക്ക് ഫുൾ എ പ്ലസുണ്ട് നയൻ്റി എയിറ്റ് പേഴ്സെൻ്റേജ് ഉണ്ട് മാം എനിക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കാൻ തന്നെയാണ് മാമിനെ കാണാൻ വന്നത് എനിക്കിപ്പോൾ ഒരു ഐ ടി ഫീൽഡിലേക്ക് എനിക്കൊരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ ചെയ്യണം ഇനി എന്തൊക്കെ പഠിക്കണം അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാമിനെ കാണാൻ വേണ്ടി വന്നത് അതേ ഉം ഓക്കെ ഉം

ഉം ഉം അല്ല എനിക്ക് കേരളം തന്നെ മതി ഓക്കെ ഉം ഉം ഉം ഉം

ഓക്കേ മാം ഉം ഉം ഉം ഉം ഉം ഓക്കെ എന്നാൽ

ഉം പിന്നെ ഉം ഉം ഓക്കെ മാം താങ്ക് യൂ മാം ഇനിയെന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ടു വരാം ഓക്കെ താങ്ക് യൂ മാം ഉം താങ്ക് യൂ മാം